എൻ്റെ ഒരു കാര്യം വച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതായത് ഞാനും അങ്ങനെതന്നെയാണ് എൻ്റെ വേരുകളിലേയ്ക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് കാരണം എനിക്കിപ്പം അത്യാവശ്യം പ്രായമായി അപ്പോൾ എനിക്കെന്നു വച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കൂൾ കാലഘട്ടങ്ങളാണ് ഏറ്റവും വലുതായിട്ട് മിസ്സ് ചെയ്യുന്നത് പിന്നെ വച്ചിട്ടുണ്ടെങ്കിൽ അതായത് സ്കൂൾ കാലഘട്ടം പിന്നെ നമ്മൾ ആ അതായത് ഇന്ന് ഇപ്പോൾ എന്തായാലും ഞാൻ കല്ല്യാണം കഴിച്ച് വേറെ വീട്ടിലാണല്ലോ ഞങ്ങളുടെ വീട്ടിൽ ജീവിച്ചതിൻ്റെ ആ ഒരു സുഖം നമുക്ക് എന്തായാലും പുറം വേറെ വീട്ടിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകില്ല അപ്പോൾ പഴയകാല ഓർമ്മകൾ അയവറുക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത് അതായത് നമ്മുടെ അതായത് നമ്മുടെ വീട്ടിലെ ഓർമ്മകളും അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ സ്കൂളുകൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ ആ ഒരു സുഖം ഒന്നും നമുക്ക് ഒരിക്കലും ഇപ്പോൾ എത്ര എത്ര നല്ല സുഖമുള്ള ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു സുഖം എന്തായാലും നമുക്ക് വേറെ കിട്ടില്ല അതാണ് മെയിൻ അതാണ് എൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കാത്തുസൂക്ഷിക്കുന്ന എൻ്റെ നല്ല ഓർമ്മകളെന്ന് എൻ്റെ സ്ക്കൂൾ കാലഘട്ടങ്ങളും പിന്നെ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ ഞാൻ ജീവിക്കുന്ന കുറച്ച് കാലങ്ങളും അച്ഛനും അമ്മയും എല്ലാവരുടെയും കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്ന കുറച്ച് കാലമാണ്